അതെ അല്ലോ ആരാണ് ആ എന്താണ് മോളെ എന്താണ് വിളിച്ചത് ആ വീടിൻ്റെ പണിയുടെ കാര്യമൊന്നും പറയേണ്ട മോളെ തറ വരെ ആയിട്ടുള്ളു കട്ടില വയ്പ്പും കഴിഞ്ഞു പിന്നെ ഒന്നുമായില്ല മഴയൊക്കെ ആയിരുന്നില്ലേ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് പണിക്കാരും വന്നില്ല കോണ്ട്രാക്റ്റ് കൊടുത്താൽ എളുപ്പം പണി തീരും എന്നോർത്തിട്ട് അതിനും ആൾക്കാർ വരുന്നില്ല ആ ഇനി ഇപ്പോൾ വന്നില്ലെങ്കിൽ വീണ്ടും ഒന്ന് വിളിച്ച് നോക്കാം രണ്ട് ദിവസം കഴിയുമ്പോൾ വിചാരിക്കുന്നു ഇപ്പം എല്ലാവരും പറയുന്നത് കോണ്ട്രാക്റ്റ് കൊടുത്താൽ നമുക്ക് വേഗം വീടിൻ്റെ പണി കഴിഞ്ഞ് കിട്ടും എന്നല്ലേ ആറ് മാസത്തിനുള്ളിൽ പണി കഴിഞ്ഞ് കിട്ടണം എന്ന് നമ്മൾ പറഞ്ഞേനേ കട്ട വച്ചോ നമ്മൾക്ക് അതാണല്ലോ ലാഭം എത്രയണെന്ന് വച്ചാണ് ലോണെടുക്കുക അത് തന്നെ ഇപ്പം തന്നെ ഇരുപത്തി അഞ്ച് ലക്ഷം നമ്മൾ കൊടുത്തു ഈ ഇനി പണി കഴിയുമ്പോഴെങ്കിലും കൊടുക്കേണ്ടി വരും എത്രയാണെന്ന് വച്ച് ലോണെടുക്കുക സ്വർണ്ണം പണയം എന്തായാലും വയ്ക്കേണ്ടി വരും ഇപ്പം ലോണെടുത്താൽ കാശുള്ളതു കൊണ്ട് നമ്മൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു ഇനി ഇപ്പം ബാക്കി പണി ഈ ലാസ്റ്റ് ആവുമ്പോഴേക്കും എന്തായാലും വയ്ക്കേണ്ടി വരും എന്നാണ് വിചാരിക്കുന്നത് അവിടേയും വീട് പണി ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ അച്ഛൻ ചേട്ടനോട് പറഞ്ഞതാണ് അങ്ങനെ വല്ല ആലോചനയുമുണ്ടോ വീട് വയ്ക്കാൻ അത് ശരിയാണ് ഇത് ഇപ്പോൾ എന്തായാലും നല്ലോണം ആലോചിച്ചിട്ട് ഇറങ്ങിയാൽ മതി കേട്ടോ ഇവിടെ ഇപ്പോൾ നമ്മൾ എന്നു മുതൽ പണി തുടങ്ങണം എന്ന് പറഞ്ഞിരുന്നതാണ് ഇപ്പോൾ മഴക്കാലമായില്ലേ ഇനി ഇപ്പോൾ നമുക്ക് വീണ്ടും നഷ്ടമാണ് ഒരു പത്ത് ഇരുപത്തി അഞ്ച് ലക്ഷം ലോണെടുത്ത് അവർക്ക് അങ്ങനെ കൊടുത്തിട്ട് ഇനി ഇപ്പം അതെന്ന് പണി തീരുമെന്നുള്ള ആറ് മാസം കൊണ്ട് എന്തായാലും തീരാൻ വഴിയില്ല അപ്പം നല്ലോണം ആലോജിച്ചിട്ടൊക്കെ ചെയ്താൽ മതി കഴിഞ്ഞ ദിവസം അച്ഛനെ കണ്ടപ്പോൾ ചേട്ടനോട് പറഞ്ഞു എന്ന് പറഞ്ഞത് ഞാൻ ആലോജിച്ചെ ഉള്ളൂ നിൻ്റെ കാര്യം

അതെ അതെ ഇപ്പോൾ കുറേ ടെക്നിക്കുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ചില കാര്യങ്ങൾക്ക് നമുക്ക് പൈസ എടുക്കാതെ പറ്റില്ലല്ലോ എന്നാൽ പുതിയത് മേടിച്ചാലും വിശ്വസമുള്ള ഒരു കടയിൽ നിന്ന് മേടിച്ചിട്ടേ കാര്യമുള്ളൂ അല്ലെങ്കിൽ നമൂക്ക് ഉറപ്പ് വരുന്നില്ലല്ലോ അതെ അതെ അവർക്ക് ലാഭമാണ് വലുത് കമ്പിക്കൊക്കെ എന്തൊരു വിലയാണ് അത് മാത്രമല്ല ഇപ്പം നമ്മൾ പുതിയ ഒരു വീട് വയ്ക്കുമ്പോൾ ഇൻ്റീരിയറൊക്കെ എല്ലാവരും നോക്കിയല്ലേ ചെയ്യുന്നത് ഇൻ്റീരിയർ ഒപ്പം ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല വീടൊക്കെ നമ്മൾ ആയുസ്സിൽ ഒന്നല്ലേ വയ്ക്കുള്ളൂ അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടേ വയ്ക്കാൻ അതാണ് അതെ അതെ അതെ അതെ

അത് മതി അത് മതി ഇനി ഇപ്പം മഴക്കാലമല്ലേ മഴക്കാലൊക്കെ കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി ലോൺ വേണമെങ്കിൽ നമ്മുടെ ഞങ്ങൾ എടുത്ത ലോൺ ബാങ്കിൽ വേണമെങ്കിൽ സംസാരിക്കാം കേട്ടോ വീട്ടിൽ ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി കോപ്പ്റേറ്റീവ് ബാങ്കിൽ നിന്ന്

ആ ഓക്കെ ഡാ മതി ആ ശരി എന്നാൽ ബായ്